പണ്ടൊക്കെ ബസ്സുകളും ഓട്ടോറിക്ഷകളും സ്കൂട്ടറുകളും ഒന്നും ഇല്ലാത്ത സമയം ഉണ്ടായിരുന്നു അന്നൊക്കെ ഒരു വണ്ടിക്ക് ഒരു അസുഖം വന്നാലൊ ഒരു വണ്ടിയില്ല ആളുകൾ സൈക്കളിൽ എങ്ങനെ എങ്കിലും ആണ് ഹോസ്പിറ്റലിൽ എത്തിക്കുന്നത് ഇപ്പോൾ ആണെങ്കിൽ ഇഷ്ടം പോലെ ബസ്സുകളുണ്ട് ഇഷ്ടം പോലെ ഓട്ടോറിക്ഷകളുണ്ട് സ്കൂട്ടറുകൾ ഉണ്ട് കാറുകളുണ്ട് വീടുകളിൽ വണ്ടികളുണ്ട് സ്കൂട്ടറുകളുണ്ട് ഓട്ടോറിക്ഷകളുണ്ട് എല്ലാ കാര്യങ്ങളും ഇപ്പോൾ സൗകര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട് ഒരു വണ്ടിക്ക് വേണ്ടി ഇപ്പം ആളും മേൽ ഓരോരുത്തർക്കും ഓരോ വണ്ടികളും ഉണ്ട് പിന്നെ ആസ്പത്രികളിൽ പോവാനായാലും യാത്ര പോവാനായാലും എവിടെ പോവാനായാലും അവരവരുടെ ഇഷ്ടത്തിന് നമുക്ക് പോകാം ഇപ്പോൾ ഉള്ള കുട്ടികൾ വരെ വണ്ടികൾ പഠിച്ചിട്ടുണ്ട് ആർക്കും വണ്ടി ഓടിക്കുവാനോ അറിയാം ഇപ്പോൾ ഡ്രൈവറെ തിരക്കി പോവണ്ട കാര്യങ്ങളും ഇല്ല ഇപ്പോൾ അവർ അവർ തന്നെ വണ്ടി ഓടിച്ചു പോകും കുട്ടിക്ക് അസുഖങ്ങളുണ്ടായാലും അവർ അവരുടെ വണ്ടികളുണ്ട് ആരെയെങ്കിലും വിളിച്ചാലും അവർ പെട്ടെന്ന് എത്തിക്കേണ്ട സ്ഥാനത്ത് എത്തിക്കും അതുകൊണ്ട് നമ്മൾക്ക് അതിൽ കുഴപ്പമില്ല